ഹലോ ക്യാബ് ഏജെന്സി അല്ലേ ഞാന് നന്ദന ഇവിടെ മാങ്ങാട്ട്കരയില് നിന്നാണ് വിളിക്കുന്നത് ഞങ്ങൾക്ക് ഒരു മൂന്നാർ ട്രിപ്പ് പോവാനുണ്ട് അപ്പോൾ ഒരു ക്യാബ് ആവശ്യമുണ്ട് ഞങ്ങൾ ഒരു കുടുംബശ്രീ ഏജന്സിയിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ നാല് പേര്ക്കൊക്കെ ഇരിക്കാന് പറ്റുന്ന ക്യാബിന് എത്ര ആയിരിക്കും ആറായിരം ഓക്കെ ഞങ്ങൾ ഇപ്പോൾ കുറച്ച് പേരുണ്ട് അപ്പോൾ ഒരു ആറ് പേര്ക്കൊക്കെ ഇരിക്കാന് പറ്റിയ ക്യാബിനോ എണ്ണായിരം ഒക്കേ അപ്പോൾ ഞങ്ങൾ രണ്ട് ദിസത്തെ ട്രിപ്പാണ് പ്ലാന് ചെയ്യുന്നത് അപ്പോൾ കുക്ക് ചെയ്യേണ്ട ആവിശ്യമൊക്കെ വരും അപ്പോൾ അതിന് സൗകര്യമുള്ള ഗ്യാസ് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉള്ള ക്യാബ് ആയിരുന്നെങ്കില് നല്ലതായിരുന്നു ഡ്രൈവറൊക്കെ ക്യാബിൻ്റെ ഒപ്പം ഉണ്ടാവുമോ കാരണം ഞങ്ങളുടെ അടുത്ത് ഡ്രൈവറില്ല ഓക്കേ അപ്പോൾ പോയിട്ട് തിരിച്ച് വരുന്നത് വരെ അവർ വെയിറ്റ് ചെയ്യുമോ അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് ദിവസത്തെ ട്രിപ്പാണ് പ്ലാന് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളോടൊപ്പം ഡ്രൈവറും പിന്നെ അവർ പോയി തിരിച്ചു വരുന്നത് വരെ അവർ അപ്പോൾ ഞങ്ങൾക്ക് അത് പോലത്തെ സൗകര്യങ്ങൾ വേണം